പ്രദേശത്ത് പുസ്തകശാല ഉണ്ട് ഒന്നേ ഉള്ളു പക്ഷേ അതില് പുസ്തകങ്ങളുടോക്കെ കുറവാണ് നോവൽ തുടങ്ങിയ പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകള് വായിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നോവൽ പഴയ കാലമുള്ള ബഷീറിൻ്റെ കൃതികള് അതുപോലെത്തന്നെ ബെന്യാമിൻ്റെ ആടുജീവിതം തുടങ്ങിയിട്ട് ഉള്ള കുറച്ച് കൃതികള് ഏറ്റവും കൂടുതല് ആളുകള് വായിക്കുന്ന രീതിയിലുള്ള പുസ്തങ്ങൾ മാത്രമേ അവിടെ ഉള്ളു വീട്ടിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ വായിക്കേണ്ട സമയമാണ് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട രീതിയിലേക്ക് നന്നായിട്ട് വായിക്കണം അപ്പോൾ പുസ്തകശാല വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതില് ഏറ്റവും കുടുതൽ റെഫെറെൻസിൻ്റെ ആവശ്യമായിട്ടുള്ള മലയാള ഗ്രന്ഥങ്ങള് ആധുനിക സാഹിത്യ ചരിത്രം തുടങ്ങിയിട്ടുള്ള ഇത് പുസ്തകങ്ങളെല്ലാം വങ്ങിച്ച് വയ്ക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വായിക്കാൻ താൽപ്പര്യം നോവലുകൾ തന്നെയാണ് ചെറുകഥ നോവലുകളാണ് നോവല് വായിക്കുന്ന സമയത്ത് നമുക്ക് ഒര് ജീവിതം ജീവിക്കുകയാണ് നമ്മള് ചെയ്യുന്നത് അല്ലെ പല പല ആൾക്കാരുടെ ജീവിതാനുഭവങ്ങള് നമ്മള് വായിക്കുന്നത് വഴി നമ്മള് ഒരുപാട് ജീവിതങ്ങള് ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു അവരുടെ കഥകളിലേക്ക് നമ്മള് മുഴുകി കൊണ്ട് ഇരിക്കുകയാണ് ഇപ്പം റീസെൻറ്റ് ആയിട്ട് വായിച്ചിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ആ ഒരു കൃതി വായിക്കുന്ന സമയത്ത് എനിക്ക് എന്നെതന്നെ അവിടെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആട് ജീവിതം അതുപോലെതന്നെ പല കൃതിയും പ്രേമനഗരം ഒരുപാട് നല്ല കൃതികൾ ഉണ്ട് ഇപ്പംറീസെൻറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഒരു നോവൽ വായിച്ച സമയത്ത് നമുക്ക് നമ്മളെത്തന്നെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ റാമിൻ്റെ ജീവിതം ആനന്ദിയുടെ ജീവിതമൊക്കെ നമുക്ക് മനസിലാക്കാൻ പറ്റും അല്ലേ നമ്മള് അടിച്ചമർത്തിപ്പെട്ട് ഇന്ന് പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് മല്ലീനെ പോലെ ഉള്ള ട്രാൻസ്ജെൻഡേഴ്സ് അപ്പോൾ അവരെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നത് എല്ലാം നമ്മൾ ഏതിലൂടെയാണ് നോവലിലുയുടെയാണ് അപ്പോൾ നോവൽ എന്നുള്ള പുസ്തകങ്ങൾ വായിക്കാനാനെനിക്ക് ഏറ്റവും കൂടുതൽ താൽപ്പര്യം ഒരുപാട് ആളുകളുടെ ജീവിതം നമ്മൾ വായനയിലൂടെ ജീവിക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്